ഹലോ ആ ഡോക്ടർ അല്ലേ ആ മാഡം എൻ്റെ പേര് മഹേഷ് എന്നാണേ എനിക്ക് രണ്ട് ദിവസമായിട്ട് ഭയങ്കര പനിയും ജലദോഷവും തലവേദനയൊക്കെ ആയിരുന്നു അ രണ്ട് ദിവസമായി വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ പനിയും തലവേദനയും ജലദോഷവും ഉള്ളൂ

ആ മഴ നഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെയൊരു ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ട് മഴ നനഞ്ഞിരുന്നു ആ ഓക്കെ മാഡം വെറങ്ങനെ ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല രാത്രി കിടക്കാൻ നേരത്താണ് ഈ പനിയൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നത് പിന്നെ മൂക്കൊക്കെ വല്ലാണ്ടടഞ്ഞ് പോകുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പോൾ വരുന്നത്

പാരസെറ്റാമോളുണ്ട് ഇല്ല ഇതുവരെ കഴിച്ചില്ല അപ്പോൾ എന്തേലും ഡോക്ടറോട് പറഞ്ഞിട്ട് എന്തേലും ചെയ്യാന്ന് കരുതീട്ടായിരുന്നു

ആഹാഹ് ആ ആ ഓക്കെ ആ ആ വിക്സ് ഉണ്ട് മാഡം ആ ആ ഓക്കെ മാഡം

ആ ആ ആ ഓക്കെ ഹാ ആ ആ ആയിക്കോട്ടെ